പിന്നെ ആരോഗ്യസംബന്ധമായ കാര്യങ്ങളിൽ സ്കൂൾ ശുചിത്വം പാലിക്കുന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ശുചിത്വം പാലിക്കണം രാവിലെയും വൈകുന്നേരവും കുളിക്കുന്നത് നല്ലതായിരിക്കും ധാരാളം വെള്ളം കുടിക്കുക വൈറ്റമിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക മാംസങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം നല്ല രീതിയിൽ പ്രോട്ടീൻ്റെ അളവ് കുട്ടികളിൽ ആരോഗ്യസംബന്ധമായിട്ട് നമുക്കുണ്ടാകണം അതൊക്കെ നിർബന്ധമായിട്ടും സ്കൂൾ പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ വൈറ്റമിനടങ്ങിയ ഭക്ഷണങ്ങൾ നല്ല വിശ്രമം ആവശ്യമാണ് ബുദ്ധിവളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണം അങ്ങനയുള്ള രീതികളിൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും നഖവുവെല്ലാം വെട്ടി വൃത്തിയാക്കി നഖം കഴുകി നല്ല രീതിയിൽ പിന്നെ വൃത്തിയാക്കുന്നതിനെക്കുറിച്ച് ഒക്കെ എന്നും ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ എന്താ ആ മുട്ട ആഴ്ചയിൽ ഒരു ഒരു ഒരു ദിവസം മുട്ടയും പാലും ഒക്കെ പാൽ രാത്രി കിടക്കുമ്പോഴത്തേക്കും പാൽ കുടിക്കുന്നത് നല്ലതായിരിക്കും മാംസങ്ങൾ മുട്ടയൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അതൊക്കെ ആരോഗ്യത്തിന് ആവശ്യമായ ഘടകമാണ് പിന്നെ ആവശ്യമായ ഘടകങ്ങൾ തന്നെയാണ് ആരോഗ്യത്തിന് പ്രത്യേകിച്ച് പിന്നെ ഉറങ്ങേണ്ട സമയങ്ങളിൽ കൃത്യസമയത്ത് ഉറങ്ങുക ബ്രഷ് ചെയ്യുക രണ്ട് നേരം ഇതൊക്കെ നമ്മുടെ ശുചിത്വത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നല്ല രീതിയിൽ തന്നെ പിന്നെ ശുചിത്വം പാലിക്കുന്നതിനെക്കുറിച്ച് പിന്നെ നല്ല കാര്യങ്ങളാണിതൊക്കെ ചെയ്യുന്നത് ആരോഗ്യത്തെ സംബന്ധിച്ച് നമ്മുടെ പല്ലുകളിൽ ഉണ്ടാകുന്ന മഞ്ഞ നിറങ്ങളൊക്കെ മാറുവാനുള്ള വൈറ്റമിൻ ഏതാണെന്ന് വെച്ചാൽ ആ പ്രോട്ടീനക്കെ പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും അതക്കെ നല്ല ആ ഒരു കാര്യങ്ങളാണ് ആരോഗ്യം പരമായിട്ടുള്ള കാര്യങ്ങളാണ് അതുപിന്നെ നമുക്ക് അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തിയാൽ അസുഖങ്ങളുണ്ടാകാതെ നമുക്ക് കാത്തുസൂക്ഷിക്കാൻ പറ്റും അതിപ്പോൾ അതിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ശുചിത്വം പ്രതേകിച്ച് ഇതിൻ്റെ ഒരു ആരോഗ്യത്തിൻ്റെ ഒരു പ്രതേക ഘടകമാണ് അപ്പോൾ അതൊക്കെ നമുക്ക് പാഠ്യപദ്ധതികളിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇതുതന്നെയാണ് പിന്നെ ആരോഗ്യത്തെക്കുറിച്ച് വേറെ നമുക്ക് പറയുവാനാണെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഉൾപ്പെടുത്തണം പാഠ പുസ്തകങ്ങളിൽ രണ്ടു നേരവും കുളിക്കുന്നതിനെ കുറിച്ചൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് വസ്ത്രങ്ങളൊക്കെ നല്ല വൃത്തിക്ക് കഴുകി സൂക്ഷിക്കുക രോഗം വരാതെ സൂക്ഷിക്കുക അപ്പം രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അതിനുള്ള രോഗപ്രതിരോധ മരുന്ന് കഴിക്കാനുള്ളതും പ്രതിരോധശക്തി നേരിടാനുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുക ഇതൊക്കെ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത്രയേ